മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഒന്ന് ആറ് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് നാല് രണ്ടായിരത്തി പത്തൊൻപത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്